ഞാൻ ഏഷ്യാനെറ്റിൽ ഏഷ്യാനെറ്റിലുള്ള ടേസ്റ്റ് ടൈം എന്ന പരുപാടി ആണ് കാണുന്നത് ഏഷ്യാനെറ്റിൽ അതിപ്പോൾ നമുക്ക് നൈറ്റൊക്കെ നമ്മൾ തിരക്കാണെങ്കിൽത്തന്നെ പകൽ നമുക്ക് നമ്മൾ വെറുതെ ഇരിക്കുന്ന ടൈം പന്ത്രണ്ട് മണിക്കാണ് ആ പരിപാടി നടക്കുന്നത് ടേസ്റ്റ് ടൈം എന്നാണ് ആ പരിപാടിയുടെ പേര് ഏഷ്യാനെറ്റിൽ എന്താ അതിപ്പോൾ എല്ലാ ദിവസവുമുണ്ട് ഞായറാഴ്ച ഒഴിച്ച് എല്ലാ ദിവസൂം ഉണ്ട് അതിൽ ഓരോ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് എന്നും അവിടുത്തെ ഓരോ റെസിപ്പീസ് ആ ടേസ്റ്റ് ടൈം കണ്ടിട്ടേ പിന്നെ ഇപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും കുറച്ചും കൂടി നന്നായിട്ട് പാചകം ചെയ്യാൻ പറ്റും എന്താണെന്നു പറഞ്ഞാൽ ഇപ്പോൾ ഓരോ പുതിയ പുതിയ റെസിപ്പീസ് നടത്തുമ്പോഴും അവർ നമുക്ക് മനസ്സിലാകുന്നത് പോലെ മെല്ലെ നിർത്തി നിർത്തി നമുക്ക് എല്ലാം കാണിച്ചു കൊണ്ടാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ വീട്ടിൽ എന്താ ലൈവായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം അവർ പറയുന്നത് പോലെത്തന്നെ എല്ലാം ഉണ്ടാക്കുകയും ചെയ്യാം ഇപ്പോൾ പെട്ടെന്ന് തന്നെ അവർ ഉണ്ടാക്കുകയാണെങ്കിൽ വീട്ടിലുള്ള ചെരുവകൾ കൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കുകയും എല്ലാം ചെയ്യാം ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഫാമിലി ഫ്രണ്ട്സ് അല്ലെങ്കിൽ കസിൻസ് അങ്ങനെ ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് കയറി വരുമ്പം നമുക്ക് വീട്ടിലൊന്നും കൊടുക്കാനില്ലെങ്കിൽത്തന്നെ ഇപ്പോൾ ടേസ്റ്റ് ടൈമിൽ കുഞ്ഞു കുഞ്ഞു ഓരോരോ റെസിപ്പീസ് കാണിക്കുന്നത് കൊണ്ടുതന്നെ ആ ടേസ്റ്റ് ടൈം പരിപാടിയിൽ ഉള്ള ആ ഓരോ റെസിപ്പീസും നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാം അതുപോലെതന്നെ കുട്ടികൾക്കുള്ള ഓരോ നല്ല മധുരമായ റെസിപ്പീസും എല്ലാം വീട്ടിൽ വീട്ടിൽ പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കിക്കൊടുക്കാൻ പറ്റിയാൽ ഓരോ റെസിപ്പീസും ഈ ഏഷ്യാനെറ്റിൽ നടക്കുന്ന ടേസ്റ്റ് ടൈം എന്ന പരിപാടിയിൽ എന്താ കാണുന്നുണ്ട് അതുപോലെതന്നെ ആ ഏഷ്യാനെറ്റ് ടേസ്റ്റ് ടൈമിൽ എന്താ ഈ റെസിപ്പീസ് നമുക്ക് പരിചയപ്പെടുത്തിത്തരുന്ന ചേച്ചിമാർ ആയാലും നല്ല വ്യക്തതയോടെ നന്നായി നമുക്ക് മനസ്സിലാകുന്ന രീതിയിലും എല്ലാമാണ് ടേസ്റ്റ് ടൈം എന്ന പരിപാടി ടേസ്റ്റ് ടൈം എന്ന പരിപാടി ഏഷ്യാനെറ്റിൽ നടക്കുന്നത് അതുപോലെതന്നെ യുട്യൂബിലും കുറേ ചാനലുകളിലുമുണ്ട് ഷമീസ് കിച്ചൺ ഇച്ഛായൻസ് കിച്ചൺ വില്ലേജ് ബ്ലോഗ് അങ്ങനെ കുറേ അങ്ങനെ കുറേ ഓരോ ചാനലുകളുണ്ട് ഇതെല്ലാമാണ് ഞാൻ കൂടുതൽ കാണുന്നത്